വക്കീൽ പോലീസ് പഞ്ചായത്ത് അംഗങ്ങൾ തഹസിൽ ഓഫീസ് എന്നിവർ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അപ്പം എൻ്റേതായ ആവിശ്യങ്ങൾ എന്ന് പറയുന്നത് പഠിക്കുക പിന്നെ സാധനങ്ങൾ വാങ്ങുക അപ്പം എനിക്ക് ഇത്തരം ആൾക്കാരുമായിട്ട് ഇടപെടേണ്ട ആവശ്യം ഇത്ര ആയിട്ടും വന്നിട്ടില്ല ഇടപെടേണ്ട സാഹചര്യങ്ങൾ വന്നാൽ കൂടി ഇപ്പം ഒരു പോലീസ് പോലീസ് ആയിട്ട് ഇപ്പൊരു ഇടപെടൽ എന്ന് പറയുമ്പം എൻ്റെ അമ്മേൻ്റെ അനിയൻ ഒരു പോലീസ് ആണ് അപ്പം അങ്ങനത്തെ സൗഹൃദ ബന്ധങ്ങൾ എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങളും ചർച്ചകൾക്ക് ഒന്നും ഞാൻ ഏർപ്പെട്ടിട്ടില്ല ഇത്രയായിട്ടും അതിൻ്റെ ആവിശ്യങ്ങൾ വന്നട്ടില്ല ഇപ്പം ഇപ്പം ഒരു ഞാനിപ്പം ഒരു വീട് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടിയാൽ തന്നെ ഞാൻ എങ്ങനെ ഒരു എന്താണ് പറയുക ഒരു തഹസിദാരെയൊ ഒരു പഞ്ചായത്ത് ഓഫീസിനെയൊക്കെ കാണണ്ട ആവശ്യമേയുള്ളു അല്ലെങ്കിൽ എനിക്കിപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഇവരായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട ആവിശ്യങ്ങൾ ഇത്രയായിട്ടും വന്നിട്ടില്ല ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അഴിമതിക്ക് ഇരയായ ഒരുപാട് മനുഷ്യന്മാര കാര്യങ്ങൾ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെ എന്താണ് പറയുക ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ ഇന്നേ വരെ കടന്ന് പോയിട്ടില്ല പിന്നെ വക്കീലായിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ ഒരുപാട് എന്താണ് പറയുക എന്താണ് പറയുക ഇങ്ങനെ അനുഭവങ്ങൾ കേൾക്കാറുണ്ടെന്ന് അല്ലാതെ ഇങ്ങനെ ഒരു ഇടപെട്ട് ബുദ്ധിമുട്ടി ഒരു അവസ്ഥയൊന്നും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ വീട്ടുകാരിൽ പലവരും എന്താണ് പറയുക ഇങ്ങനെ ചില വായ്പകളെടുത്തിട്ടും അതുപോലെ തന്നെ വീട് വയ്ക്കണ്ട ആവിശ്യത്തിനുമൊക്കെ ഞാൻ പഞ്ചായത്ത് ഓഫീസ് കണ്ടിട്ടുണ്ട് തഹസിൽദാർ തഹസിൽദാറിൻ്റെ ഓഫീസ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഓഫീസുകൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇവരുമായിട്ടുള്ള കാര്യമായ ഇടപെടലൊന്നും എനിക്ക് ഇന്നേ വരെ ഉണ്ടാവേണ്ടി വന്നട്ടില്ല ഇനി മുന്നോട്ട് ഉണ്ടാകും അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കണ്ടറിയുക തന്നെ വേണം പിന്നെ അത് എന്ത് പ്രശ്നമുണ്ടായാലും നേരിടാൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം